തീയിൽ പാചകം ചെയ്യുന്നത് എനിക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു കാര്യമാണ് എന്താണ് വെച്ചാൽ നമ്മൾ പണ്ട് മുതലേ പരമ്പരാഗത രീതിയിൽ തീയിൽ ഉണ്ടാക്കുക എന്ന് പറഞ്കഴിഞ്ഞാൽ വളരെ ഇഷ്ടമുള്ള അടുപ്പ് കത്തിച്ച് വിറക് വെച്ച് ഭക്ഷണം പാകം ചെയ്യുന്നൊരു രീതി എനിക്ക് വളരെയധികം ഇഷ്ടമാണ് ഗ്യാസിലോ അല്ലെങ്കിൽ ഇൻ്റക്ഷൻ കുക്കറിലോ ഇൻ്റക്ഷൻ അടുപ്പിലോ നമ്മളങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു ഫീല് കിട്ടാറില്ല അടുപ്പ് കത്തിച്ച് വിറകടുപ്പിൽ ഓരോ കറികൾ ഉണ്ടാക്കുമ്പോൾ അത് മൺചട്ടിയിൽ മൺപാത്രത്തിലൊക്കെ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അതിൻ്റെയൊരു ടേയ്സ്റ്റ് അത് വേറെ തന്നെയാണ് അത് എത്ര ആയാലും നമ്മൾ ഗ്യാസ് അടുപ്പിൽ വയ്ക്കുമ്പോഴോ ഈ കുക്കറിൽ ഉണ്ടാക്കുമ്പോഴോ അതിൻ്റെ ആ ഒരു രുചി നമുക്ക് കിട്ടില്ല അതാ വിറകടുപ്പിൽ കിടന്ന് തിളച്ച് വെന്തുവരുമ്പോൾ ചോറായാലും കറികളായാലും ഉപ്പേരി തോരൻ എന്ത് സാധനമായാലും ഇനി മീൻ കറിയായാലും ചിക്കൻ കറിയായാലും അതിന് വേറൊരു ടേയ്സ്റ്റ് ഉണ്ട് അതാ വിറകടുപ്പിൽ കിടന്ന് തിളച്ച് വെന്ത് വരുമ്പോൾ അതിനൊരു വേറെ എന്താപറയുക ഒരു പ്രത്യേക സ്വാദ് ആണ് അത് ആർക്കും പറഞ്ഞറിയിക്കാനാവില്ല അത് നമ്മൾ ഉണ്ടാക്കി കഴിച്ചാൽതന്നെ അതിൻ്റെയൊരു ഫീല് നമുക്ക് കിട്ടുള്ളൂ എനിക്ക് കൂടുതലായിട്ടും ഇഷ്ടം വിറക് കത്തിച്ചിട്ട് അടുപ്പിൽ പാകം ചെയ്യാനാണ് ഇഷ്ടം അതാകുമ്പോൾ ഗ്യാസിനും വളരെയധികം ലാഭമാണ് കറന്റിനും ഇൻ്റക്ഷൻ കുക്കർ ഉപയോഗിക്കുന്നത് കറണ്ട് ചാർജിനൊക്കെ വളരെയധികം മാറ്റം ഉണ്ടാവും നമുക്ക് ഈ വിറകടുപ്പ് ഉപയോഗിക്കുമ്പോൾ അതായത് വെള്ളം തിളപ്പിക്കാനാണെങ്കിലും വെള്ളം ഇപ്പം ചുക്ക് വെള്ളമൊക്കെ തിളപ്പിക്കുകയാണെങ്കിൽ അടുപ്പിൽ കത്തിക്കുമ്പോൾ അതിനൊരു വേറൊരു എന്താണ് ആ വെള്ളത്തിനൊരു എന്താപറയുക നമുക്ക് ഗ്യാസ്സ് വളരെയധികം ലാഭം കിട്ടുന്നൊരു പരിപാടിയാണ് ഗ്യാസ് ആയാലും കറണ്ട് ചാർജ് ആയാലും വളരെയധികം ലാഭം കിട്ടും വിറകടുപ്പിൽ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ പിന്നെയൊരു സംതൃപ്തിയും കിട്ടും